കായികശേഷി വിദ്യാഭ്യാസം എന്നതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് കാരണം നല്ല ആരോഗ്യപരമായിട്ടുള്ള മനസ്സുണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് അവർ വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ കാരണം ഇപ്പം ചെറുപ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് അവരുടെ അംഗൻവാടികളിലും മറ്റു സ്കൂളുകളിലേക്ക് മറ്റ് ആ ലെവലിലേക്ക് പോകുമ്പോൾ അതിന്റേതായിട്ടുള്ള കായികളും നമ്മൾ ഉൾപ്പെടുത്താറുണ്ട് നമ്മുടെ ആ ഒരു കരിക്കുലത്തിൽ അത് തീർച്ചയായിട്ടും അത് തീർച്ചയായിട്ടും അവർ അവരുടെ ഒരു മനസ്സിനേയും ശക്തി നൽകാനും വളർത്തിയെടുക്കാനും വിദ്യാഭ്യാസത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനുമൊക്കെയാണ് നമ്മൾ കളികൾ ഉപയോഗിക്കുന്നത് ഓരോരു കളികളും കുട്ടികൾക്കുള്ള ആ ഒരു ആകർഷണം അല്ലെങ്കിൽ താൽപര്യം ഒക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അത് എത്രത്തോളം അവരുടെ മനസ്സ് അതിനെ ഫോക്കസ് ശ്രദ്ധ ആകർഷിക്കുന്നു അത് അത് പഠിത്തവുമായിട്ട് നമ്മളതിനെ കമ്മ താരതമ്യം ചെയ്യുമ്പോൾ അതെങ്ങനെ ഉപയോഗിക്കാമെന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും കളികൾ അല്ലെങ്കിൽ കായികം മറ്റും മേളകൾ എല്ലാം കുട്ടികളിലേക്ക് നമ്മൾ പകർന്ന് ഇപ്പം കലാപരിപാടികൾ പോലെ തന്നെ കുട്ടികളുടെ കായികശേഷിയും നമ്മൾ ചില ആൾക്കാർക്ക് പഠിത്തത്തിനേക്കാളുമുപരി അല്ലെങ്കിൽ കലാപരിപാടിയേക്കാളുമുപരി അല്ലെങ്കിൽ അവർക്ക് കായികത്തോടുള്ള കഴിവുകളായിരിക്കും കാണാൻ സാധിക്കുന്നത് അപ്പോൾ അത് തീർച്ചയായിട്ടും വളർത്തിയെടുക്കേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം നമ്മുടെ സമൂഹത്തിനുണ്ട് തീർച്ചയായിട്ടും അധ്യാപകർക്കും മാതാപിതാക്കൾക്കും അത് തീർച്ചയായിട്ടും വളർത്തിയെടുക്കണം അങ്ങനെ വളർത്തിയെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനെ അടുത്ത തലത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുളളൂ തീർച്ചയായിട്ടും കളികളിലൂടെ കുട്ടികൾക്ക് തീർച്ചയായിട്ടും പിന്നെ അവരുടെ കഴിവുകൾ വളർത്തിയെടുക്കാൻ കഴിയുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു